നമ്മളിപ്പോൾ രാവിലെ ഓടാൻ പോകുമ്പോൾ കൃത്യം ഒരു അഞ്ച് മണിക്കെണീയ്ക്കും അപ്പോൾ പിന്നെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആ ടൈമിൽ തന്നെ തീരും എന്നിട്ടേ ഓടാൻ പോകുകയുള്ളൂ അപ്പോൾ പിന്നേ ഓടി വന്നതും നമ്മളപ്പം തന്നെ കുളിയ്ക്കും നല്ലാരോഗ്യമുള്ള ഫുഡ് കഴിയ്ക്കും മുട്ടയും പാലുമൊക്കെ കഴിയ്ക്കും അപ്പം നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും പിന്നെ നല്ല ഹെൽത്തി ആയിരിയ്ക്കും എപ്പോഴും നല്ല ഉന്മേഷവാനായ പുഷ് ഉന്മേഷവാനായിട്ട് തന്നെ ഉണ്ടാകും എപ്പോഴും അതൊക്കെ നമ്മുടെ നല്ല പ്ലെസന്റ് മൈൻഡിൽ തന്നെ എപ്പോഴും നിൽക്കാൻ പറ്റും

അതുപോലെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഭയങ്കര കൂൾ ആയിട്ടിരിയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഓരോരോ സമ്മർദങ്ങൾ ഒന്നും മനസ്സിൽ ഉണ്ടാകില്ല രാവിലത്തെ ഒരു നടത്തം അല്ലെങ്കിൽ ഓട്ടം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രകൃതിയുമായിട്ടുള്ളൊരു ഇണങ്ങി ചേരൽ നമ്മളുടെ മാനസിക മാനസിക ആരോഗ്യത്തെ നന്നായി ഒരു ഉന്മേഷവാനാക്കി തീർക്കും തീർക്കും